ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ പ്രധാനമായിട്ടും ഗ്രൗണ്ടുകൾ രൂപികരിച്ചു നൽകുന്ന പദ്ധതികളാണ് പ്രധാനമായിട്ടും സർക്കാർ ആണെങ്കിലും ഇപ്പോൾ ലാഭേച്ഛ ഇല്ലാത്തെ പ്രവർത്തിക്കുന്ന സംഘടനകൾ ആണെങ്കിലും ചെയ്യാറ് അല്ലെങ്കിൽ ചെറിയ വികസന സംഘടനകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യമായ സ്പോട്ടുസുപകരണങ്ങളൊക്കെ ആ സീസണൽ സമയത്തോ പിന്നെ അതിനാവശ്യമായ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാറാണ് പതിവ് സർക്കാറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പഞ്ചായത്തു നിന്നു എല്ലാ വർഷവും കൃത്യമായിട്ട് സ്പോട്ടുസുപകരണങ്ങൾ കറക്റ്റായി സു റജിസ്റ്റർ ചെയ്ത സ്പോട്ട്സ് ഏ ക്ലബുകൾക്കു കൃത്യമായി നൽകി വെ വരാറുണ്ട് എല്ലാ വർഷവും ക്രികറ്റ് ഫുട്ബോൾ ബാഡ്മിൻ്റൺ പിന്നെ നമ്മളുടെ വോളി ബോൾ ബാസ്കറ്റ് ബോൾ ഇന്ന ഇന്ന ആവശ്യമായ നെറ്റുകൾ ഇതൊക്കെ സർക്കാറിൽ നിന്ന് കറക്റ്റായിട്ടു തന്നെ എല്ലാ വർഷവും ലഭിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള ചെറിയ ക്ലബുകളൊക്കെ ഈ ചെറിയ കുട്ടികൾക്ക് ട്രെയിനിങ് ചെയ്യാനുള്ള ക്യാമ്പുകളും അതിനുള്ള അവസരങ്ങളും അവർക്ക് വേണ്ട അവർക്ക് ഈ കരിയർ കെട്ടിപ്പടുക്കാൻ മാണ്ടീട്ടുള്ള ആ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കാൻ മാണ്ടീട്ട് ചെറിയ ചെറിയ ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട് ചെറിയോസം വൺ ഡേ ടൂർണമെൻറ്റ് കളി പിന്നെ ക്യാമ്പുമായി നല്ല പ്രകടനം കാഴ്ച വെക്കുന്ന കുട്ടികളെ നല്ല ടൂർണ്ണമെൻ്റിലൊക്കെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫണ്ടുകളൊക്കെ ചെറിയ ചെറിയ ക്ലബുകളൊക്കെ നൽകലുണ്ട്